ഹലോ ഹലോ ആ ആ കേൾക്കുന്നുണ്ട് പറയൂ കോവിഡ് ആണോ ആ നിങ്ങൾ എപ്പോളാണ് ടെസ്റ്റ് ചെയ്തത് ആ എവിടുന്ന് ആ അപ്പോൾ ഹലോ ഹലോ ആ പറയൂ പറയൂ കോഴിക്കോട് അപ്പം നിങ്ങൾ കോവിഡ് ഉള്ള ആൾക്കാരെ കൂടെ ഉണ്ടായിരുന്നോ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് കോവിഡ് ആയിരുന്നു എന്ന് ആ ആ ആ ആണോ ആ നിങ്ങളെ കൂ ആ ആ ആ അല്ല നിങ്ങളെ കൂടെ ഉള്ള ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് ആയിരുന്നു എന്ന് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ആ ആ ആ എവിടുന്നാണ് അങ്ങനെ കറക്റ്റ് അറിയില്ല ആ ആ നിങ്ങൾ ഇതൊക്കെ ടേസ്റ്റ് ഒക്കെ പോയിരുന്നോ സ്മെല്ലും ടേസ്റ്റ് ഒക്കെ പോയിരുന്നോ ആ ആ ആ എന്തായാലും നിങ്ങ വൈറ്റമിന്റെ ഗുളിക ഉണ്ടോ കയ്യിൽ നിങ്ങളുടെ ആ വൈറ്റമിൻ അതുപോലെ മറ്റേ കാൽഷ്യത്തിന്റെ അയേണിന്റെ ഒക്കെ ഉണ്ടോ കയ്യിലുണ്ടോ ആ എന്നാൽ പിന്നെ അത് കഴിച്ചോ തീരുമ്പോൾ ഒന്ന് അറിയിക്കണം ഞങ്ങൾ എത്തിക്കാം നിങ്ങൾ വീട്ടിൽ തന്നെ നിന്നോ വേറെ എവിടെയും പോവേണ്ട വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ വന്നിട്ടുണ്ടോ ആണോ പനിയെങ്ങാനും ഉണ്ടോ പനിയോ അല്ലെങ്കിൽ മേല് വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ തൊണ്ട വേദന ചുമ ഉണ്ടോ ആ ഇപ്പോൾ കയ്യിലതിൻ്റെ ചുമേൻ്റെ മരുന്നുണ്ടോ ആ എന്നാൽ പിന്നെ എത്തിക്കാം കേട്ടോ അവിടുന്ന് എവിടെയും പോവേണ്ട ഞങ്ങൾ എത്തിക്കാം വീടുകളിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ എത്തിക്കാം പിന്നെ അതുപോലെ വെള്ളം നന്നായിട്ട് കുടിച്ചോ വെള്ളവും പിന്നെ അതുപോലെ ആവി പിടിച്ചോ നന്നായിട്ട് തൊണ്ടവേദന ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ ആവി നന്നായിട്ട് പിടിച്ചോ ഒന്നും ഇടേണ്ട വെറും വെള്ളത്തിൽ പിടിച്ചാൽ മതി പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുത്തോ അധികം വെയിറ്റ് ഉള്ള ജോലികൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട റെസ്റ്റ് എടുക്കണം നന്നായിട്ട് ഇത് പെട്ടെന്ന് മാറണമെങ്കിൽ പിന്നെ ത നല്ല തലവേദനയൊക്കെ ഉണ്ടാവുമല്ലോ ആ അതിൻ ആ അതിൻ്റെയൊക്കെ ഒരു വേദനേൻ്റെ ഗുളിക ഉണ്ട് അതിൻ്റെയൊക്കെ കൊടുത്തുവിടാം എത്തിക്കാം ആ ആ നന്നായിട്ട് വെള്ളവും കുടിക്കണം നന്നായിട്ട് ആവിയും പിടിക്കണം ആ ആ ആ എന്നാൽ ശരി ആ